കോവിഡ് സാഹചര്യത്തിലൊക്കെ വളരെ അധികം ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമായിരുന്നു നമുക്ക് കോവിഡ് സാഹചര്യത്തിൽ എല്ലാവരും മാസ്ക് ധരിക്കാതെ ആരും പുറത്ത് പോയിരുന്നില്ല പോയിരുന്നില്ല അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് ഒരു ഡ്രൈവർ മാസ്ക് ധരിക്കാതെ പുറത്ത് പോയിരുന്നത് ഞാൻ അദ്ദേഹത്തിനോട് മാസ്ക് ധരിക്കാൻ ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൃത്തിയില്ലാത്ത സീറ്റ് ആ കാറിലെ വൃത്തിയില്ലാത്ത സീറ്റൊക്കെ വൃത്തിഹീനമായ സീറ്റൊക്കെ വൃത്തിയാക്കാൻ ആവശ്യപ്പെടുകയും ഞാൻ ചെയ്തു അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഡ്രൈവറിൻ്റെ അടുത്ത് ആവശ്യപ്പെടുകയും അദ്ദേഹം അത് കേൾക്കാത്ത മട്ടിൽ ഇരിക്കുകയും ചെയ്ത തു കൊണ്ടു തന്നെ ഞാൻ അതിനെ ഇപ്പം ജൻസി ഗതാഗത ഏജൻസിയ്ക്ക് പരാതിപ്പെടുകയാണ് ഉണ്ടായത് അത് എനിക്ക് വളരെ അധികം ഇത്രയ്ക്കും ജാഗ്രത പാലിക്കേണ്ട ഒരു അവസരത്തിലും അദ്ദേഹം ഇത്ര വൃത്തിശൂന്യമായിട്ട് വൃത്തി

എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കാറിൽ സഞ്ചരിക്കുന്ന ഓരോ യാത്രക്കാർക്കും അസുഖം ബാധിക്കാനായിട്ടുള്ള ചാൻസ് വളരെ അധികം കൂടുതലായിരുന്നു